എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രം ഊട്ടിയാണ് അവിടെ ധാരാളം കുതിരകളെ കാണാൻ പറ്റും അവിടുത്തെ പ്രകൃ പ്രകൃതി ഭംഗി വളരെയധികം വിവരിക്കേണ്ടതാണ് രാത്രികളിൽ പോകാനാണ് എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം യാത്രക്കൊക്കെ പിന്നെ അവിടുത്തെ സൂര്യകാന്തി പൂവുകൾ ഊട്ടിപ്പൂവ് ഊട്ടി ആപ്പിൾ അതൊക്കെ കൗതുകം നിറഞ്ഞതാണ് പിന്നെ ധാരാളം മരങ്ങളടങ്ങിയ സ്ഥലങ്ങളും നല്ല ഗ്രൗണ്ട് പോലത്തെ സ്ഥലങ്ങളും പിന്നവിടുത്തെ കൃഷികൾ സ്ട്രോബറിയും ക്യാബേജ് അങ്ങനെ വളരെയധികം തണുപ്പേറിയ ഒരു പ്രദേശമാണ് ഊട്ടി അതുകൊണ്ടെനിക്കത് വളരെ അധികം ഇഷ്ടമാണ്